ഞാനൊരു കിടക്ക വാങ്ങിയിരുന്നു കിടക്ക സ്പ്രിംഗ് കിടക്കയാണ് വാങ്ങിയത് ഓൺലൈന് ഓൺലൈന് വഴിയാണ് വാങ്ങിയത് കിടക്ക നല്ല കിടക്കയാണ് നമുക്ക് നല്ലോണം ഉറക്കമൊക്കെ വരുന്നുണ്ട് കിടക്കയിൽത്തന്നെ മസാജ് ചെയ്യാം മസാജ് ചെയ്യും അതുപോലെ തലേൻ്റെ അവിടെ പൊക്കി വയ്ക്കാനുള്ള ഓപ്ഷനെല്ലാം ഉണ്ട് റിമോട്ട് കൺട്രോളറാണ് കിടക്ക അങ്ങനെയൊക്കെയാണ് കിടക്ക ഞാൻ വാങ്ങിയത് നല്ല കിടക്കയാണ് നാല്പതിനായിരം റുപ്പിക റേറ്റ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഡബിൾ കോട്ടും ഉണ്ട് സിംഗിൾ കോട്ടും ഉണ്ട് അത് നല്ല കിടക്കയാണ് അതേപോലെ നമുക്ക് അതുതന്നെ ചെയറ് പോലെ ആക്കാനും പറ്റും കിടക്ക റിമോട്ട് കൺട്രോളുള്ള കിടക്കയാണ് മസാജിങ്ങൊക്കെ ഉള്ള ടൈപ്പ് കിടക്കയാണ് നല്ല കിടക്കയാണ് നല്ല ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ശരീരങ്ങൾക്കൊന്നും തളർച്ചയോ ക്ഷീണമോ അങ്ങനെയൊന്നുമില്ല അതുപോലെ മേലും കയ്യൊന്നും വേദന എടുക്കില്ല നല്ല സ്പ്രിംഗൊക്കെ നല്ല സ്പ്രിംഗ് തന്നെയാണ് നമ്മൾ കുറേ പേർ തുള്ളിക്കളിക്കാനൊന്നായാലും സ്പ്രിംഗൊന്നും പോവാത്ത ടൈപ്പാണ് നല്ല കിടക്കയാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് വാങ്ങിയത് നല്ല കിടക്കയാണ് നല്ല ഉറക്കമൊക്കെ വരും നല്ല നമുക്ക് വേഗം കിടന്നുറങ്ങാനും ഒക്കെ സുഖമാണ് അതേപോലെ ഒരു ഭാഗം തണുപ്പും ഒരു ഭാഗം ഹീറ്റെന്ന് പറഞ്ഞ ടൈപ്പുള്ള കിടക്കയാണ് ഞാൻ വാങ്ങിയത്